ഇവിടുത്തെ നെയ്ത്ത് അല്ലെങ്കിൽ തുന്നൽ രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുരിദാർ മെറ്റീരിയൽസും ബ്ലൗസ് അതുപോലെതന്നെ ആര്യ വർക്കുകൾ ചെയ്യുന്ന പിന്നെ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും കൂടുതലും ഈ പ്രദേശത്ത് കാണുന്നത് പിന്നീട് പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങളെന്ന് പറയുന്നത് എന്താണ് ബ്ലൗസ് അതുപോലെ തന്നെ പിന്നീട് ചെറിയ ചെറിയ കുട്ടി ഉടുപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള തയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ചെറിയ രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്കുകൾ അതിനകത്ത് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്